ഹലോ സ്വീറ്റ് മാര്ട്ട് നടത്തുന്ന ആളല്ലേ ആ ഞാന് തോപ്രാംകുടിയിൽ നിന്ന് വിളിക്കുവാണ് തോപ്രാംകുടിയിൽ നിന്ന് വിളിക്കുവാണ് എനിക്ക് എനിക്ക് അടുത്ത ദിവസം ഒരു ഫ എനിക്ക് അടുത്ത ദിവസം ഒരു ഫങ്ങ്ഷന് ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ലഡു ജിലേബി എല്ലാം കൂടെ വേണമായിരുന്നു എങ്ങനെയാണ് നിങ്ങളുടെ റേറ്റൊക്കെ എങ്ങനെയാണ് ഫങ്ങ്ഷന് നമുക്കൊരു ബര്ത്ത്ഡേ ഫങ്ങ്ഷന് ആണ് ആ വൈകിട്ടത്തേക്കാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ആ അ

അപ്പം നമുക്ക് ഒരു നമുക്കൊരു നൂറു പീസ് വേണമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാന് പറ്റുമോ ഇവിടെ നമുക്ക് ഇവിടെ എത്തിക്കാന് പറ്റുമോ നാളെ വൈകിട്ട് ഒരു അഞ്ചുമണി ആകുമ്പോഴത്തേക്ക് എത്തിച്ചാൽ മതി ആ ആ ശരി ശരി ആ വേറെ എന്താണ് നിങ്ങൾക്ക് ഉള്ളത് സ്പെഷ്യല് എന്താണ് ഉള്ളത് വേറെ എന്താണ് സ്പെഷ്യല് ഉള്ളത് ആ ആ ഹാ ആ ആ ഹാ ശരിക്കും നിങ്ങൾ എന്താ പറയുക മറ്റേ ബര്ത്ത്ഡേയ്ക്ക് ഒക്കെ ബെര്ത്ത്ഡേയ്ക്ക് ഉണ്ടാക്കുന്ന ബര്ത്ത് ഡേ കേക്ക് ഉണ്ടോ അത് നിങ്ങൾ ഓർഡർ അനുസരിച്ച് ചെയ്യൂ അതായത് ഏത് ഏത് ഡിസൈന് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈന് തന്നു കഴിഞ്ഞാൽ നിങ്ങള് അത് വഴി ആ രീതിയില് ഉണ്ടാക്കുമോ ആ ആ ഹ ഹലോ നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഡെലിവറി ചെയ്യില്ലേ അത് പൈസ എങ്ങനെയാണ് നിങ്ങള്ക്ക് ഗൂഗിള് പേ ഉണ്ടോ അതോ പൈസ ആയിട്ട് തരണോ എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നതിന് എക്സ്ട്ര പേമെന്റ് വല്ലതും ഉണ്ടോ അത് നിങ്ങൾ കൊണ്ടുത്തരുന്നതിനു എന്തെങ്കിലും കൂടുതല് പൈസ ഈടാക്കുമോ അതോ അതിന്റെ തന്നെ പൈസയേ ഉള്ളോ ഫ്രീ ഡെലിവറിയാണ് ഇല്ലേ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും വേറെ ഉണ്ടോ വേറെ ബേക്കറി വല്ലതും ഉണ്ടോ അതോ ഇത് മാത്രമേ ഉള്ളോ ആ ഞാന് കപ്പ് കേക്ക് ഏതൊക്കെയാണ് ഉള്ളത് കപ്പ് കേക്ക് ഡോണട്ട്സ് ഒക്കെ ഉണ്ടോ ഡോണട്ട്സ് ആ ആ ഹാ

നാളെ വൈകിട്ട് ഒരു അഞ്ചുമണിയാകുമ്പോഴേക്കും തന്നാൽ മതി മുറിക്കാനുള്ള കത്തിയും കൂടെ വെക്കണം കേട്ടോ മുറിക്കാനുള്ള കത്തിയും കൂടെ വെക്കണം ബെ കേക്ക് മേടിക്കുമ്പോൾ കേക്ക് തരുമ്പോൾ കത്തിയും കൂടെ തരണം കേട്ടോ ഗാര്ണിഷൊക്കെ ചെയ്യുമോ നന്നായിട്ട് ഗാർണിഷൊക്കെ ചെയ്തു തരണം അപ്പോൾ കേക്ക് നമുക്ക് ഇവിടെ കൊണ്ടുവരുമ്പോൾ തട്ടാതെയും ഉടയാതെയുമൊക്കെ നല്ല രീതിയില് നീറ്റ് ആയിട്ട് നമുക്ക് തരണം എന്തേലും ഡാമേജ് വന്നാൽ ഞാന് കാശ് തരികയില്ല കേട്ടോ ഉള്ള കാര്യം ഞാന് പറഞ്ഞേക്കാം നേരത്തെ ഡാമേജ് എന്തേലും വന്നു കഴിഞ്ഞാൽ കാശ് തരികയില്ല

ആ ശരി ശരി എന്നാൽ ശരി ആയിക്കോട്ടെ നാളെ അഞ്ചു മണിയാവുമ്പോഴത്തേക്കും തന്നേരെ ഓക്കേ ആ ശരി